ഞാൻ ആദ്യമൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പം ചെറുപ്പത്തിലൊക്കെ നല്ല രീതിയിലുള്ള പ്രതിമകളക്കെ ഉണ്ടാക്കാറുണ്ട് വയലിലൊക്കെ പോയിട്ട് ആ ഒരു ആ ചെളി ഇപ്പം നമ്മുടെ വയലിലുള്ള ചെളികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രതിമകളൊക്കെ ഉണ്ടാക്കാറുള്ളത് ഇവിടുത്തെ നമ്മുടെ മിറ്റത്തുള്ള മണ്ണെന്നോക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള മണ്ണാണ് അപ്പം അത് നമുക്ക് കറക്റ്റ് രൂപമായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും വയലിലുള്ള കറുത്ത മണ്ണുണ്ട് അപ്പം അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പ്രതിമകൾ കാര്യങ്ങളക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട് സാധിക്കും അപ്പോൾ ഞാൻ ചെറുപ്പത്തിലക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ടൊക്കെയാണ് പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട് മണ്ണ് എടുത്തിട്ട് വരാറ് ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളിമണ്ണ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ കളിമണ്ണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അതായത് ചട്ടിയൊക്കെ ഉണ്ടാക്കാനുപയോഗിക്കുന്ന പഴയ രീതിയിലുള്ള ആ നമ്മുടെ ചട്ടിയില്ലേ അതായത് മൺചട്ടി മൺചട്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടീട്ട് ഉപയോഗിക്കുന്ന മണ്ണാണ് കളിമണ്ണ് അപ്പം അത് വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മളെന്തെയ്യാ ഒരു ഇപ്പം ഒരു എന്തേലും പ്രതിമയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട് അ അതാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറ് അപ്പം നല്ല രീതിയിലുള്ള ഇപ്പം ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിത്രയും നാളും പിടിച്ച് നിന്നത് അപ്പം ആൾക്കാർ കൂടുതലായിട്ടും നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രതിമകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട് പ്രചോദനം ഉണ്ടായത്